കാരണം അത് പാലുകുടിക്കുന്നുണ്ടോ അതുപിന്നെ തള്ളയില്നിന്ന് അതിനേ പിന്നെ എന്തെങ്കിലും അപകടകരമായ രീതിയിലുള്ള പിന്നെ തള്ളയിടിക്കാന് വരുന്നുണ്ടോ അല്ലേ അങ്ങനെയുള്ള രീതികളെന്തെങ്കിലും ആ കുട്ടികള്ക്കുണ്ടാകുന്നുണ്ടോ അതെല്ലാം വളരെ കരുതലോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ അത് പാല് കുടിക്കുന്നുണ്ടോ അത് പാല് ചില ആടുകൾ അല്ലെങ്കിൽ ചില പശുക്കളാണെങ്കിലും ചിലപ്പം അതിന്റെ കുഞ്ഞുങ്ങളേക്കൊണ്ട് പാല് കുടിപ്പിക്കാത്ത ആ രീതിയാണ് ചില മൃഗങ്ങളില് നിന്ന് നമുക്ക് കാണുന്നത് പക്ഷെ ആ അതൊക്കെ നമ്മൾ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്താല് മാത്രമേ നമ്മൾക്കതിന്റെ വളര്ച്ചയ്ക്ക് വേണ്ട രീതിയിലുള്ള പിന്നെ പോഷകാഹാരം അതില്നിന്ന് കിട്ടുകയുള്ളു ഏതായാലും ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾക്ക് പിന്നേ അത് തള്ളയില്നിന്ന് കിട്ടുന്ന ആദ്യത്തെ ആ പാല് ഒരു കുടിച്ചാല് മാത്രമേ അതിന്റെ പോഷകാഹാരം മറ്റു ആഹാരങ്ങളൊന്നും കൊടുക്കാതെ തന്നെ അതിന് ആ പാല് കുടിച്ചു തന്നെ ഏകദേശമൊരു മൂന്നാഴ്ച്ചയോളം നാലാഴ്ച്ചയോളം ആ പാലുതന്നെ കുടിച്ചത് വളരുകയാണ് അതിനുവേണ്ട പിന്നെ മുന്കരുതലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനുഷ്യർ അതിനേ ഈ നമ്മളിന്ന് വളര്ത്തുന്ന നമ്മൾ തന്നെ കര്ഷകർ തന്നെ നമ്മൾ തന്നെ അതിനുവേണ്ട ശ്രദ്ധയും പരിപാലനവും കൊടുത്താല് മാത്രമേ അത് വളര്ത്തിക്കൊണ്ടുവരുവാന് അതിന് സാധിക്കുകയുള്ളു സാധിക്കുകയുള്ളു അതോടൊപ്പംതന്നെ അതിന്റെ പ്രത്യുല്പ്പാദന സമയം പ്രത്യുല്പ്പാദനം അതിന്റെയിപ്പോൾ പ്രത്യുല്പ്പാദന സമയം നമ്മൾ പിന്നേ അതിന്റെ ലക്ഷണം കാണുമ്പൾ നമ്മൾ നല്ല മൃഗങ്ങളേക്കൊണ്ട് ചേർപ്പിക്കുക നല്ല മൃഗങ്ങളെക്കൊണ്ട് ചേർപ്പിച്ചാല് മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളേ നമ്മള്ക്ക് ഉല്പ്പാദക ഉല്പ്പാദനത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുകയുള്ളു അപ്പം നല്ല കുട്ടികളുണ്ടാവണമെങ്കിൽ നല്ല ജനസ്സില്പ്പെട്ട നല്ല മൃഗങ്ങളെക്കൊണ്ടുവേണം നമ്മൾക്ക് കണ്ട് മൃഗങ്ങളെ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളത് അതിന്റെ അതുമായിട്ട് വന്ന് പിന്നെ ഇണ ചേര്ക്കുവാനായിട്ട് തീര്ച്ഛയായിട്ടും അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾക്കുതന്നെ കാരണം നല്ല കുട്ടികളേ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല പാലുല്പാദനങ്ങള് കൂട്ടുവാന് സാധിക്കും പാല് നല്ല പാല് കൂടുകയും ചെയ്യും നമ്മൾക്ക് നല്ല വരുമാന ശ്രോതസ്സ് അതുവഴി ഉണ്ടാകുകയും ചെയ്യും പരിപാലിക്കുന്ന കാര്യത്തിലാണെങ്കിൽ വളരേ മൃഗങ്ങളേ പരിപാലിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്ത് എപ്പോഴും നല്ല ക്ലീനായിരിക്കണം തൊഴുത്ത് പിന്നെ വായുസഞ്ചാരം ഉറപ്പാക്കണം തൊഴുത്തിൽ അതുപോലെതന്നെ പിന്നേ മറ്റ് അതായത് രാത്രിയിൽ കിടക്കുമ്പോഴതിനേ പിന്നെ കൊതുക് അങ്ങനെയുള്ള മറ്റു പ്രാണികളുടെ ശല്യമുണ്ടാകാത്ത രീതിയിൽ അതിനേ പരിരക്ഷിക്കണം കാരണം അങ്ങനെയൊരു വളരേ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാല് മാത്രമേ നമ്മൾക്കതിന്റെ അതില് നിന്നുമുള്ള പ്രത്യുല്പ്പാദനം അല്ലെങ്കിൽ അതില് നിന്നുള്ള വരുമാനം നമ്മൾക്ക് പ്രത്യുല്പ്പാദനമല്ല വരുമാനം നമ്മൾക്ക് നമ്മൾക്ക് ലഭിക്കുകയുള്ളു കാരണം ഇതിനേ രാത്രിയിൽ കിടക്കുമ്പോൾ നല്ല സൗകര്യങ്ങൾ അതായത് നമ്മൾ തൊഴുത്ത് ഇതിൻ്റെ അകത്ത് ചാണകവും അതേപോലെതന്നെ പിന്നേ ആടാണെങ്കിൽ ആട്ടിൻ കാഷ്ടമൊക്കെ കൊടുക്കുന്ന മൂത്രമൊക്കെ കൊടക്കുന്ന രീതിയിലാണെങ്കില് പിന്നെയവടെ കൊതുകിന്റെ ശല്യം പരത്തിക്കൊണ്ട് അതിനേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാവും അപ്പം നല്ല ഇതൊന്നും ഇല്ലാതെ നല്ല ശാന്തമായി അതിന് കിടന്നുറങ്ങാനുള്ള നല്ല അന്തരീക്ഷം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് തീര്ച്ഛയായിട്ടും അതിന്റെ പാലുല്പ്പാദനത്തെ വര്ദ്ധിപ്പിക്കും നല്ല പോഷകാഹാരം കൊടുക്കുക അത് അതിന്റെ സമീകൃതമായുള്ള ആഹാരം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് അതിനേ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു അതോടൊപ്പം തന്നേ പരിപാലനം വളരെ ഈ പരിപാലിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ നമ്മള് നമ്മുടെ വീട്ടില് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതേ ആ രീതിയിൽത്തന്നെ വേണം ഇതുങ്ങളേയും നമ്മൾ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവ പശു ആട് എരുമ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ നിന്ന് ഇവരുടെ കുഞ്ഞു മൃഗങ്ങളേ നല്ല രീതിയിലേക്ക് പരിപാലിച്ചുകൊണ്ട് വേണ്ട രീതിയിലുള്ള ശ്രുശ്രൂഷകള് ചെയ്തുകൊണ്ട് അതിന് സമയത്ത് പിന്നെ മരുന്നുകള് കൊടുത്തുകൊണ്ട് വിര മരുന്നും അതുപോലെതന്നെയുള്ള പോഷകാഹാരവും പിന്നെ അതെല്ലാം കൊടുത്തുകൊണ്ട് ഞാന് മാത്രമേ അതിനേ നല്ല രീതിയിൽ നല്ല വളര്ച്ച അതിന് ലഭിക്കുകയുള്ളു അപ്പം നമുക്ക് നല്ല കുഞ്ഞുങ്ങളേ നമ്മൾക്ക് വളർത്തിയെടുക്കുവാൻ ഇതിൽ നിന്ന് സാധിക്കും അപ്പം മൂന്നോട്ടുള്ള വളർച്ചയിൽ രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല കുട്ടികളേ അതിൽ നിന്ന് വീണ്ടും ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും